കോഴിക്കോട് ജില്ലയിലെ പ്രധാന കാർഷിക ഉൽപ്പന്നവും കൃഷി രീതി എന്നു പറഞ്ഞാൽ അങ്ങനെ വേറെ വേറെ ആയിട്ടുള്ള കൃഷികളും ഒന്നുമില്ല സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലത്തെ ഒരു കൃഷി തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ ആളുകളും ചെയ്യുന്നത് എന്നാൽ കൂടുതൽ ആളുകളും പോകുന്നത് വിദേശത്താണ് കൂടുതൽ ആളുകളും ഉള്ളത് അവിടെയാണ് അവർ ജോലി ചെയ്ത് അവിടെ തങ്ങുകയാണ് ചെയ്യുന്നത് എന്നാൽ കൂടുതലും പിന്നെ ഈ പെയിന്റിംഗ് ബിൽഡിംഗ്സ് കെട്ടുക വീട് കെട്ടുക അങ്ങനത്തെ നിർ കെട്ടിട നിർമ്മാണ അങ്ങനെ അങ്ങനത്തെ പണികൾക്കൊക്കെ ഒരുപാട് ആളുകളും പോകാറും ഉണ്ട് കൂടുതലായിട്ട് അങ്ങനത്തതിനൊക്കെയാണ് പോകുന്നത് പെയിൻ്റ് അടിക്കുക പെയിൻ്റ് അടിക്കാനുള്ള പണി പിന്നെ കൃഷിയായിട്ടുള്ള അങ്ങനെയൊന്നുമില്ല ചെറിയ ചില ആളുകൾ മാത്രമേ ഈ നെൽകൃഷി നെൽകൃഷിയൊക്കെ ചെയ്യുന്നുള്ളൂ പിന്നെ കൂടുതൽ ആളുകളും ഈ ഫോണിലൂടെയുള്ള ഓരോ ജോലികളിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് സാങ്കേതികവിദ്യയിലൂടെയാണ് എല്ലാവരും ഇപ്പോൾ കഴിയുന്നത് പിന്നെ കന്നുകാലികളെ നോക്കുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് കൂടുതൽ ആളുകളും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിദേശത്തും പിന്നെ ഈ പെയിന്റിംഗ് വാർക്ക പണി അങ്ങനത്തെ പണിക്കൊക്കെയാണ് കൂടുതൽ ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത്